ഇന്ത്യ നമ്മുടെ ഇപ്പോൾ എല്ലാ തരത്തിലും എല്ലാ സാംസ്കാരികവും പാരമ്പര്യവും വിശ്വാസങ്ങളുമായിട്ട് എല്ലാ തരത്തിലും ഇന്ത്യ വ്യത്യാസം ഇന്ത്യ മറ്റ് മറ്റ് സംസ്കാരങ്ങളിൽ നിന്ന് വളരെ അധികം വ്യത്യാസപ്പെട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത് അതായത് നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളവർ ചെയ്യുന്ന തരത്തിലല്ല അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾലോ വേറെ സ്ഥലങ്ങളിലോ ഉള്ള ആൾക്കാരുടെ ഇപ്പോൾ വസ്ത്ര ധാരണം ആണെങ്കിലും ആഹാരം കഴിക്കുന്നത് ആണെങ്കിലും അല്ലെങ്കിൽ ആഹാര രീതികളാണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ഇപ്പോൾ ഇന്ത്യയിൽ പല തരത്തിലുള്ള വിശ്വാസങ്ങളും അതായത് ഇപ്പോൾ ഹിന്ദുക്കൾക്കാണേലും ക്രിസ്ത്യൻസിനാണേലും മുസ്ലീങ്ങൾക്കാണേലും അവർക്കൊരോത്തർക്കും ഓരോ തരത്തിലുള്ള വിശ്വാസങ്ങളും അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള പ്രാർത്ഥനാ രീതികളും ഓരോ തരത്തിലുള്ള ആഹാര രീതികളും ഒക്കെയാണ് ഇപ്പോൾ അത് പോലെ സെയിം തന്നെ ആകണമെന്നില്ല വേറേ ഏതെങ്കിലും ലൈക്ക് ഇപ്പോൾ ഇന്ത്യ അല്ല വേറൊരു സ്ഥലത്താണ് എന്നുണ്ടെങ്കിൽ നമ്മക്ക് അവിടെ വരുന്ന ഇപ്പോൾ പല തരത്തിലുള്ള ആഹാര രീതികളായിരിക്കും അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നതിന് പല രീതികളുണ്ടായിരിക്കും അല്ലെങ്കിൽ ആഹാരം ആഹാരം കഴിക്കുന്നതിനോ അല്ലെങ്കി പ്രാർത്ഥനാ രീതികളോ അല്ലെങ്കിൽ വസ്ത്ര ധാരണത്തിനുള്ള രീതികളോ എല്ലാം വ്യത്യാസം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ഇന്ത്യക്കാർ കൂടുതലും അവരുടെ ഒരു മതപരമായിട്ടുള്ള വിശ്വാസങ്ങളും മതപരമായിട്ടുള്ള വിശ്വാസങ്ങളിൽ അവരുറച്ച് നിൽക്കുന്ന രീതികളും കാര്യങ്ങളും എല്ലാം മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ആ കാര്യങ്ങളിലൊക്കെ